ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇടക്ക് സൈക്കിൾ ചവിട്ടാൻ പോവും ഞങ്ങൾ ഏർളി മോർണിംഗിൽ അതായത് ഒരു അഞ്ചരക്ക് ഒരു അഞ്ചര അഞ്ചേ മുക്കാല് ആ ഒരു ടൈമിൽ പോവ്വാണെങ്കിൽ നമുക്ക് പിന്നെ ഒരെട്ട് മണി എട്ട് മണിക്കുള്ളിൽ നമുക്ക് തിരിച്ച് വരണം കാരണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും വണ്ടികൾ പോവുന്നത് എന്നാൽ നമുക്ക് കുഴപ്പമില്ല അത്രെ എസ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓക്കേ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ എക്സ്പീരിയൻസൊന്നും ഇല്ല എന്ന എനിക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് പക്ഷേ ഫ്രെണ്ട്സിൻ്റൂടെ പോകാൻ നല്ല ഒരു രസമാണ് അവർ അവർ റയിഡേഴ്സാണ് അവർ ഓൾ ഇന്ത്യയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് സെർക്കിളിൽ അവർ സൈക്കിളിൽ പോകുന്നവരുണ്ട് ബുള്ളറ്റി പോകുന്നവരുണ്ട് റൈഡേഴ്സാണ് അവർ അപ്പം നമുക്ക് പരിമിതികളുണ്ട് എനിക്കങ്ങനെ പോകാൻ പാടില്ല പോകാൻ പറ്റില്ല ഫേമിലിയുണ്ട് അവർ വിടില്ല അപ്പം നമ്മൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഇവിടെ അടുത്തൊക്കെ ഒരു പത്ത് മുപ്പത് കിലോമീറ്ററൊക്കെ ചവിട്ടും അത്ര തന്നെ